ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബര് ഇരുപത്തിനാല് ആയിരത്തിയെണ്ണൂറ്റി എണ്പത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്പത് നവംബര് ഇരുപത്തിയേഴ്